ഇപ്പോൾ ഒരു നവജാത ശിശുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആദ്യ എന്താ പറയുക ഇപ്പോൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക നമ്മൾ ഫോട്ടോ എടുക്കും പിന്നെ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഇപ്പോൾ ആചാരങ്ങളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരുപത്തെട്ട് നടത്തുക അതായത് ഇപ്പം അച്ഛൻ്റെ വീട്ടുകാർ വന്നിട്ട് കൊച്ചിൻ്റെ അരയിൽ എന്താ പറയുക ഇപ്പം അരഞ്ഞാണം കെട്ടുകാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇരുപത്തെട്ടെന്ന് വേണമെങ്കിൽ പറയാം അത് കെട്ടുകാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു എന്താ പറയുക ഒരു വർഷത്തിൽ ഇരുപത്തെട്ടാമത്തെ ദിവസത്തിലാണ് ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസത്തെ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടു വരിക ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ട് വരിക അങ്ങനത്തെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സിൽ നടത്തുന്ന ആഘോഷങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണ്